മലയാള ഭാഷയുടെ ഉത്ഭവം തന്നെ മറ്റു പല ഭാഷകളിൽ നിന്നാണ് മലയാള ഭാഷ ഇന്നു കാണുന്ന രൂപത്തിലേക്കു വന്നിട്ട് കുറച്ച് നാളുകളേ ആയിട്ടുള്ളു വട്ടെഴുത്ത് നീട്ടിയെഴുത്ത് അങ്ങനത്തെയുള്ള മല പല രീതികളൊക്കെയായിരുന്നു ആദ്യമായിട്ട് ഉണ്ടായിരുന്നു അത് സംസ്കൃതത്തിൽ നിന്ന് തമിഴിൽ നിന്നെല്ലാമാണ് മലയാളമുത്ഭവിച്ചു വരുന്നത് പല വാക്കുകളും ഇന്നും സംസ്കൃതമായിട്ടും തമിഴൊക്കെയായിട്ട് സ്വാധീനം ചെലുത്തുന്നൊരു അതിനൊരു സാമ സാമിപ്യം അതെന്തോ പറയുന്നത് ആ ഒരു സാധനം ഉള്ളതുമാണ് അപ്പം ഇംഗ്ലീഷ് ഭാഷകൾ മലയാളത്തിൽ ഇപ്പോൾ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണിപ്പം ഏറ്റവും മികച്ചത് സമൂഹത്തിലല്ലെങ്കിൽ കോളേജിലല്ലേ സ്കൂളിലേറ്റവും നല്ലത് എന്നല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിശാലി അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നു വെച്ചാൽ ഇപ്പം ആർക്കാണോ ഇംഗ്ലീഷ് കൂടുതലായിട്ട് സംസാരിക്കുക അവൻ നന്നായിട്ട് പഠിക്കുന്നതാണ് അവൻ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയാം അവന് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷ് നന്നായിട്ട് എഴുതും എന്നു പറയുമ്പം തന്നെയാണ് അവൻറ്റെ ഒരു വില അവിടെ തെളിയ്യുന്നതു തന്നെ മലയാള ഭാഷയെ അടിച്ചിരുത്തുന്ന ഒരു പ്രവണതയേ ഇന്നു കാണുന്നുണ്ട് മറ്റ് ആംഗലേയ ഭാഷകൾ മറ്റു ഭാഷകളൊക്കെ കടന്നു വന്ന് ഇപ്പം ഒരു കവിത ഓർക്കുന്നുണ്ട് എന്നാൽ എനിക്കതിൻ്റെ കൂടെ അറിയാം കുഞ്ഞനേ അറിയാം എനിക്കതിൻറ്റെ ഭാഷ ഭാഷയുടെ പ്രാധാന്യം എനിക്കെന്നും എൻറ്റെ മാതൃഭാഷ തന്നെയാണ് പ്രധാനപ്പെട്ടത് ഒരുപാട് കവിതകൾ ഒരുപാട് എഴുത്തുകളെല്ലാം ഈ മാതൃഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്നുണ്ട് ഒരുപാട് കവികൾ അല്ലേ ഇതൊരു ഒരുപാട് കഥാകൃത്തുകൾ ഈ ഭാഷയ്ക്കു വേണ്ടി വാദിക്കുന്നുമുണ്ട് ഏറ്റവും മികച്ച ഭാഷ എൻറ്റേതാണ് എന്നു പറയുന്നതു തന്നെയാണ് എനിക്ക് കൂടുതലിഷ്ടം കാരണം ഈ മലയാള ഭാഷയെ ഒരുപാട് ഇന്ന് എന്നാ വിലമതിക്കപ്പെടാതെ വരുന്നുണ്ട് മലയാള ഭാഷയുടെ ആ ഒരു എന്ന തനിമ നഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ അതിനകത്തേക്കൊരു ഇംഗ്ലീഷൊക്കെ കൂട്ടിക്കലർത്തി അതിൻറ്റെ ഒരു ചുവയെല്ലാം മാറ്റി ഒരു ആങ്കറുമാരൊക്കെ ഇപ്പം ഒരു ഫാഷൻ രീതിയിലേക്ക് മലയാള ഭാഷയെ കൊണ്ടു വരുന്നുണ്ട് സംസ്കൃതമെന്നു പറയുന്നത് സംസ്കൃതം ഇപ്പം ഒരുപാട് എന്നാ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും മലയാള ഭാഷക്കൊരു ഭീഷണി നേരിടുന്നില്ല മലയാള ഭാഷയുടെ ഒരു വേറൊരു വേർഷനാണെന്നു മാത്രമേ ഉള്ളു സംസ്കൃത ഭാഷ ശരിക്കും ഒരു സംസ്കൃത അദ്ധ്യാപകൻ ഉപയോഗിക്കുന്ന പല ഭാഷകൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് ഇതെല്ലാം തന്നെ ഈ മലയാള ഭാഷയുടെ വേറൊരു വേർഷനും കൂടിയാണത്